ഞാന് കൂടുതലായി യു ട്യൂബില് കാണുകയും ചെയ്യുന്ന ഫുഡ് ചാനല് എന്ന് പറയുന്നത് ഫിറോസ് ചുട്ടിപ്പാരയുടെ വില്ലേജ് ഫുഡ് ചാനല് എന്ന് പറയുന്ന ചാനലാണ് അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഏത് സാധാരണക്കാര്ക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അവതരണം അതുപോലെ തന്നെ അദ്ദേഹം ഈ യു ട്യൂബില് ഉണ്ടാക്കുന്ന ഫുഡുകളെല്ലാം കൂടുതലായി നല്ല ക്വാണ്ടിറ്റി ഉ ഉണ്ടാക്കുകയും അത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും അനാഥാലയത്തിലോ അതുപോലെതന്നെ അംഗപരിമിതിയുള്ള കുട്ടികള് താമസിക്കുന്ന ലോഡ്ജുകൾലോ ഒക്കെ കൊണ്ടുപോയി അവര്ക്കിടയില് വിതരണം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ യു ട്യൂബ് ചാനലിലൂടെ വരുമാനമുണ്ടാക്കുന്നതോടൊപ്പം അദ്ദേഹമൊരു സാമുഹ്യ സേവനം കൂടെയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിനാലാണ് ഞാനീ ഫിറോസ് ചുട്ടിപ്പാറയുടെ ഈ ചാനല് കൂടുതലായും കാണുന്നത് ഈ ഫിറോസ് ചുട്ടിപ്പാറ ചാനല് കണ്ടുകൊണ്ട് നമുക്കൊരു എന്തെങ്കിലൊരു ഫുഡ് പ്രോടക്റ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നിയാല് വളരെ സിമ്പിളായിട്ട് അത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഞാന് ഇദ്ദേഹത്തിന്റെ ചാനല് കണ്ടു കൊണ്ട് ആദ്യമായി ഉണ്ടാക്കിയ ഒരു ഉല്പന്നമാണ് ചൈനീസ് ബിരിയാണി എന്ന് പറയുന്നത് ചൈനീസ് ബിരിയാണിയൊക്കെ അയാള് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിലൂടെ സിമ്പിളായി കൊണ്ട് വിവരിച്ച് ആ ഏതൊരു സാധാരണക്കാര്ക്കും ആ ഓഡിയോ മാത്രം കേട്ടുകൊണ്ട് പാചകം ചെയ്യാന് വേണ്ടി സാധിക്കും അതുപോലെ തന്നെയാണ് ഞാന് വേറൊരു കാണുന്ന ഒരു ചാനലാണ് ലില്ലിസ് നാച്ചുറല് ടിപ്സ് എന്ന് പറയുന്നത് അദ്ദേഹവും നല്ല രീതിയില് ഉള്ള അവതരണവും മറ്റു സംസാരവും നല്ല രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചാനലും ഞാന് സ്ഥിരമായി കാണാറുണ്ട് കണ്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസും ഞാന് വീട്ടില് പരീക്ഷിക്കാറുണ്ട് അത് വീട്ടിലുള്ള എല്ലാവര്ക്കും നല്ല രീതിയില് ഇഷ്ടമാകുകയും ചെയ്യാറുണ്ട്